ചെറുപ്പകാലത്ത് ഞാൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഒരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്നതുമാണ് കാരണം അന്ന് അതിൻ്റെ വിലയോ അതിൻ്റെ മഹത്വമോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞാൻ ഒരു ഒരു അമ്മേൻറ്റെം കുഞ്ഞിൻ്റെയും ചിത്രമാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ അത് ഒരു അമ്മയായി കഴിഞ്ഞതിന് ശേഷമാണ് അതിനെത്രത്തോളം ചിത്രത്തിന് പ്രാധാന്യമുണ്ട് അതിൻ്റെ അർത്ഥവും ഒക്കെ എനിക്ക് മനസ്സിലായത് അത് ആ കാലം വരെ ചെറുപ്പകാലത്തൊന്നും നമുക്ക് അമ്മമാരുടെ നമുക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുന്ന അവരുടെ ആ ഒരു സ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് മനസ്സിലാ മനസ്സിലാവില്ല അതേ സമയത്ത് നമ്മൾ ആ ഒരു സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ മാത്രമേ അയ് അമ്മ എന്നുള്ള പേരിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നുള്ളൂ അങ്ങനെ ആ ഒരു ചിത്രം ഇപ്പോഴും എടുത്തു നോക്കുമ്പോൾ അന്ന് ഒന്നുമറിയാത്ത പ്രായത്തിൽ ഞാൻ വരച്ച ചിത്രം ഇപ്പോൾ എത്രത്തോളം അതിന് അർത്ഥമുള്ളതാണ് പ്രധാന പ്രാധാന്യപ്പെട്ടതാണ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയൊരു ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞത് ഏതൊരു ഏതൊരാളെ സംബന്ധിച്ചടത്തോളവും ഏറ്റവും വലിയൊരു മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് ഒരു അമ്മേൻ്റെ ചിത്രം വരയ്ക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ചെറുപ്പകാലങ്ങളിൽ ഉള്ള ആ ഒരു ചിത്രമാണ് വരച്ചത് അത് പിന്നീട് നമ്മൾ ഒരു അമ്മയാകുമെന്നോ അങ്ങനെ ഒന്നും ഓർത്തിട്ട് വരച്ചതല്ല അതിൻ്റെ പ്രാധാന്യം ഇപ്പം വളരെയധികം മനസ്സിലാക്കുന്നുണ്ട്